ഹലോ ആ ഞാനേ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു താമരശ്ശേരി വരാനായിട്ട് ആ അതെ അതെ അതുതന്നെ ആ ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഡ്രൈവറെ വിളിച്ചിരുന്നു അപ്പോൾ അവര് പറയുന്നതൊരു പതിനഞ്ച് മിനിറ്റ് ഇനിയും ഡിലെ ആകുമെന്നാണ് ആ ഓക്കെ ആ അപ്പോൾ ഞാന് പറഞ്ഞ ടൈമിനേക്കാളും നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി ഹാഫ് ആൻ അവറ് ലേറ്റാണ് അപ്പോൾ എനിക്കൊരു അർജെന്റായത് കൊണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ക്യാബ് കറക്റ്റ് ടൈമില് വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഡ്രൈവർ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സോ എനിക്കിനി പോയിട്ട് കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ക്യാബിൻ്റെ ആവശ്യം ഇല്ല ഞാൻ ക്യാബ് റദ്ദാക്കുകയാണ് ആ അതെ അതെ ഇനിയിപ്പോൾ ട്രിപ്പ് വേണ്ട എനിക്കിനി വേണ്ട ഇനിയിപ്പോൾ എത്തിയിട്ടും കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളിനി വരണമെന്നില്ല ഞാൻ എന്തായാലും ആ പോക്ക് ക്യാൻസൽ ആക്കുകയാണ് എൻ്റെ ട്രിപ്പ് ഞാനങ്ങോട്ട് ക്യാൻസൽ ചെയ്തു ആ ഓക്കെ നിങ്ങള് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങള് പറഞ്ഞ ടൈമില് എത്താൻ ശ്രമിക്കുകയെന്നുള്ളതാണ് കാരണം നിങ്ങള് നിങ്ങളുടേതായ ടൈമിലെത്തിയിട്ട് നമുക്ക് കാര്യമില്ല നമ്മളൊരു ടൈം പറയുമ്പോൾ ആ ടൈമിലെത്താൻ നിങ്ങള് പരമാവധി ശ്രദ്ധിക്കണം അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോടിപ്പോൾ പറയാണ്ടിരുന്നാലും ശരിയാകില്ല സോ നിങ്ങളാദ്യം അതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഞങ്ങളെ കസ്റ്റമേഴ്സിനെ നിങ്ങള് എങ്ങനെയാണോ ഇതാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയും ഓട്ടമൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇനിയും ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഈ ട്രിപ്പ് ക്യാൻസല് ചെയ്തു എനിക്ക് ഇനി ടാക്സിയുടെ ആവശ്യം ഇല്ല ഓക്കെ ആ നിങ്ങള് ക്യാൻസല് ചെയ്തോളു ആയിക്കോട്ടെ ശരി എന്നാൽ കേട്ടോ ഇനിയെങ്കിലും നിങ്ങളിത് ശ്രദ്ധിക്കണം ആ ഓക്കെ